ഹലോ എന്തായിരുന്നു മാം വേണ്ടത് ഓക്കെ മാം എങ്ങനത്തെ ഡ്രസ്സ് ആണ് മാം ഉദ്ദേശിക്കുന്നത് വാങ്ങാൻ സാരി നമുക്ക് മൂന്നൂറ്റൻപത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മാം മാമിന് എങ്ങനത്തെ സാരി ആണ് വേണ്ടേന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അങ്ങനത്തെ സാരികൾ ഇണ്ട് ഇപ്പം ഓണത്തിന് ആയതോണ്ട് കുറച്ച് കൂടുതൽ മോഡൽസ് വന്നിട്ടുണ്ട് സെറ്റ് സാരിയിൽ തന്നെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് മാമിന് ഇഷ്ടം ഉള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ടിംഗ് മുന്നൂറ്റൻപത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാം ഓക്കെ തീർച്ചയായും മാം ഇത് ഇപ്പം പുതിയ മോഡൽ ആണ് മാം ഇതിൽ ഇത് കണ്ടോ ചെമ്പരത്തീൻ്റെ ഡിസൈൻ ആണ് പിന്നെ ഉള്ളത് ഈ റൗണ്ട് പൊട്ട് വരുന്ന ഡോട്ട് ഡോട്ട് ആയിട്ട് ഒരു വലിയ ഡോട്ട് ആയിട്ട് കണ്ടില്ലേ ഇതിന് ചുറ്റും ചുറ്റും കുഞ്ഞി കുഞ്ഞി ഡോട്ട് ഇത് ഇപ്പോഴത്തെ ട്രെൻഡി മോഡൽ ആണ് സെറ്റ് സാരീല് വരുന്നത് പിന്നെ നമുക്ക് സെറ്റ് സാരീൻ്റെ തന്നെ കുർത്തീസ് വരുന്നുണ്ട് പട്ടു പാവാട ഉണ്ട് പിന്നെ ഷേർട്ട് മുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും വേണോ മാം അത് മീഡിയം ആണോ സ്മോൾ ആണോ സൈസ് എന്താണ് വേണ്ടത് ലാർജ് സ്മോള് അങ്ങനെ ഏത് സൈസ് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റും ഒരേ പോലത്തെ ഷേർട്ട് ആണോ അതോ ഒരേ കളറ് തന്നെ വ്യത്യസ്ഥ കളറിൽ ഓരോരോ ഷേർട്ട് ആണോ ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് കോഡ് ഉണ്ടോ മാം ഓ ഡിസൈനർ ഷർട്ട് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ മാം നമുക്ക് ഇവിടെ ഉണ്ട് മാമിന് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് ആയിരിക്കും ഓ അത് ഇവിടെ ഉണ്ട് മാം ഉണ്ട് ഇഷ്ടം പോല ഉണ്ട് മാമിന് ഇഷ്ടം ഉള്ളത് സെലക്ട് ചെയ്യാം ഞങ്ങൾ ഡിസൈൻസ് എന്തായാലും മാമിന് കാണിച്ച് തരും സാരീസ് മാമിന് ഇതിൽ ഏതാണ് വേണ്ടത് ബെസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്യാം അതുപോലെ പട്ടു പാവാട ഉണ്ട് കുർത്തീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം തീർച്ചയായും മാം ഉണ്ട് തീർച്ചയായും മാം എന്തായാലും നമ്മൾ നമ്മുടെ ഭാഗത്തിന്ന് ഒരു പിന്നെ കൂപ്പൺ കാർഡ് ഉണ്ട് ആ അഡ്ജസ്റ്റും ചെയ്ത് തരാൻ പറ്റും മാം ഓക്കെ മാം മാമിൻ്റെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്യാം മാമ് പിന്നെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നേന് ഇന്ന് ഇനി എന്നാണോ പർച്ചേസ് ചെയ്യാൻ വരുന്നത് അന്ന് നമുക്ക് എല്ലാം എല്ലാം സെറ്റ് ആയിട്ട് ഉണ്ടാവും മാമിന് അന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകാം മാം ഓക്കെ ഓക്കെ അത് പിന്നെ അങ്ങനെയും ചെയ്യാം മാമിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഓ കാർഡ് എടുക്കും മാം

ഓക്കെ മാം ഇവിടെ നമുക്ക് കാർഡും എടുക്കും ഇത് ഇപ്പം നിങ്ങൾ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ എങ്ങനെ ആയാലും കുഴപ്പം ഇല്ല സ്കാനർ ഉണ്ട് ഇവിടെ കാർഡും എടുക്കും അല്ലാതെ നിങ്ങൾ ക്യാഷ് ആയിട്ട് തരുവാണെങ്കിൽ അങ്ങനെയും എടുക്കും ഓക്കെ താങ്ക് യൂ മാം